ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ പ്രശസ്തമായ നൃത്ത കലകളെന്നു പറയുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി കഥകളി പടയണി അങ്ങനെ കുറേ ഐറ്റംസുണ്ട് അതിൽ പ്രശസ്തരായരെ വ്യക്തികളെക്കുറിച്ച് അറിയുമോ എന്നു ചോദിച്ചാൽ മലയാളം ഫിലിമിംപാക്റ്റ് ആക്ട്രസ്സായ ശോഭന മഞ്ജുവാര്യർ ദിവ്യ ഉണ്ണി ഇവരൊക്കെ മോഹിനിയാട്ടം ചെയ്യുന്നവരാണ് ഇവരെക്കുറിച്ചൊക്കെ പേഴ്സണലായിട്ട് അറിയില്ലായെങ്കിലും ഇവരെക്കുറിച്ച് ഇവരെ അറിയാം ഇവരൊക്കെ നല്ല നർത്തകരാണ് ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒരുപാട് നൃത്തശാലകളുണ്ട് ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ കലാരൂപങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണ്ടത്തെ പോലെ ആരും കല പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ഫീൽഡിലേക്കു വരുന്നില്ല എല്ലാവരും ഓരോ ജോലിയും കാര്യങ്ങളൊക്കെയായിട്ട് വിദേശത്തേക്കു പോവുകയാണ് പണ്ടത്തെ അത്രയും നർത്തകികളും നർത്തകന്മാരും കുറവാണ് ഇന്ത്യയിൽ നിലവിൽ എനിക്കിഷ്ടം മോഹിനിയാട്ടമാണ് അദ്ദേഹം അതു കണ്ടിരിക്കാൻ വളരെ ഭംഗിയുണ്ട് മോഹിനിയാട്ടമാണ് എനിക്കു വളരെ ഇഷ്ടം